വിളിക്കാം ശരി ശരി വാർത്ത രാവിലെയും വൈകിട്ടും ഞങ്ങൾ വാർത്തകൾ കേൾക്കാറുണ്ട് വാർത്ത കേൾക്കുമ്പം കൂടുതലും ഇഷ്ടം നമുക്ക് മറ്റേ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ളവയും കേൾക്കാറുണ്ട് പിന്നെ ഈ ഈ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും കേൾക്കാറുണ്ട് പിന്നെ ഒക്കെ ആ പിന്നെ കുറ്റകൃത്യങ്ങളൊക്കെ പറയുന്നവയെ നമ്മൾ കാണുന്നു എങ്കിലും ഏകദേശം കൂടുതൽ രാഷ്ട്രീയപരമായിട്ടും ബിസിനസ് പരമായിട്ടും അങ്ങനെയുള്ള വിനോദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് ഏറെ ഇഷ്ടം കുഴപ്പം ഇല്ല നന്നായിട്ട് നന്നായിട്ട് ഏറ്റവും കൂടുതൽ ശ്രവിച്ച് അതിനെ മനസ്സിലാക്കുന്നു പിന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു